ഹലോ ആ ഇത് ടൂറിസ്റ്റ് ഗൈഡാണ് ആ സാർ ഞാന് ഇന്ത്യയിലെ കേരളം കേരളം ഒന്ന് കാണാന് വേണ്ടി വരുകയാണേ അപ്പോള് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിലെ ഈ റബ്ബർ പ്ലാൻറ്റേഷൻ റബ്ബറിനെ കുറിച്ചും അങ്ങനുള്ള കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിറയെ കേട്ടിട്ടുണ്ട് അപ്പോള് അതിനെ കുറിച്ചെനിക്കൊന്ന് പറഞ്ഞുതരാമോ അതായത് ഈ റബ്ബർ ഒത്തിരി പ്രൊഡക്ഷൻ ഏതൊക്കെ രാജ്യ സ്ഥലങ്ങളിലാണുള്ളേ ഏത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണുള്ളേന്ന് പറയാമോ ആ പർട്ടിക്കുലറായിറ്റ് എവിടെയാണെന്ന് ഇടുക്കി ആ ആ മ്മ് ഓക്കെ ഓക്കെ ആ ഈ

ഓക്കെ എനിക്ക് ഈ ഇതിനെ ഇതിനെ കുറിച്ച് കൂടുതലറിയാൻ താൽപ്പര്യമുണ്ടപ്പോള് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാന് പറ്റുമോ ആ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചാണ് ഓക്കെ ആ ആ

അതെന്താ സാർ മൂന്ന് ദിവസം അങ്ങനേ പറയുന്നത് മൂന്ന് ദിവസം ഡെയിലി വെട്ടാന് പാടില്ലേ സാർ

ഇത് ഓക്കെ മ്മ് ഓ ഓക്കെ ഓക്കെ ഓക്കെ ഇത് നല്ല ലാഭമുള്ള ബിസിനസ്സാണോ സാർ

ഓക്കെ അപ്പോള് ഞങ്ങള്ക്ക് ഒരു തോട്ടം ഒന്നു കാണിച്ചുതരാമോ ഓക്കെ അത് ഞാനെവിടെയാണു വരേണ്ടത്

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാർ അപ്പോള് ഇത് പോലും ഇതുപോലെ ഞങ്ങള്ക്കും തുടങ്ങാന് പറ്റുമോ സാർ ഓക്കെ മ്മ് ഓക്കെ ഓക്കെ എത്ര വർഷം എടുക്കും ഈ ഞങ്ങള്ക്കിതിൻ്റെ ലാഭം

ഓക്കെ ഓക്കെ സാർ നേരി ഓക്കെ ആ ഞങ്ങള്ക്ക് നമ്മ നമുക്ക് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഫിക്സെയ്യാം ഓക്കെ ഓക്കെ ഓക്കെ സാർ ഓക്കെ